സാർ ഞാൻ നിങ്ങളെ ഒരു പാക്കേജിന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ നിങ്ങളേയ് ഏകദേശം എത്ര പേരുണ്ടാകും ഏഴ് പേരല്ലേ ഗെയ്ഡിനയച്ച് കഴിഞ്ഞാൽ ഗൈഡിനത് പെർ ഡേ എനിക്ക് പെർ ഡേ രണ്ടായിരം പിന്നെ ഓരോ സ്ഥലത്ത് പോണതിനനുസരിച്ചാണ് ഇവിടെ കാണാൻ കുറെ സ്ഥലങ്ങളുണ്ട് ബാണാ കൽപ്പറ്റ വന്നിറങ്ങും അല്ലേ അവിടെ വന്ന് പിക്ക് ചെയ്യാനോ ആ പിക്ക് ചെയ്യാം വണ്ടിയുണ്ട് ആ റിസോട്ടുണ്ട് അതും നമ്മളെ കസ്റ്റഡീതന്നൊണ്ട് റീസോട്ടൂണ്ട് വണ്ടിയും ആ അത് ഈ പെർ ഹെഡിന് പെർ ഹെഡിന് ആറായിരത്തി അഞ്ഞൂറ് രൂപ വെച്ചാണ് വരുന്നത് നിങ്ങൾ ഏഴ് പേരാകുമ്പോൾ ഓരോരുത്തർക്ക് അതായത് പെർ ഹെഡിന് ആയിരത്തി അഞ്ഞൂറ് രൂപ വച്ച് വരും ആ പെർ ഹെഡിന് ആ പെർ ഹെഡ് ആ എല്ലാമുണ്ടാകും ലിക്കറ്ണ്ടാവും സ്പായിണ്ട് പൂള്ണ്ട് അതെല്ലാം ഓക്കേയാണ് ആ ക്യാം പ്ഫയറെല്ലാം ഉണ്ടാകും ആ ട്രക്കിങ് പോകാൻ ഇവിടെ ബ്രഹ്മഗിരി മല അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട് ട്രക്കിങ് പോകാൻ പറ്റിയതാണ് നൈസ് പ്ലേസാണ് ബ്രഹ്മഗിരി മലയൊക്കെ പോവാണെങ്കിൽ ഒരു എക്സ്പീരിയൻസായിരിക്കും റേറ്റ് അവിടെ ട്രക്കിങ്ങിന് ഒന്ന് ചോദിച്ച് നോക്കണം സാറെ അതിൻ്റെ പല സീസണിൽ പല റെയ്റ്റാണ് അപ്പോൾ ഈ ആ ഞാൻ ഉണ്ടാകും ഞാൻ നിങ്ങടെ കൂടെ എപ്പോഴും ഉണ്ടാകും അ ഞാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും പിന്നെ എക്സ്പീരിയൻസാണല്ലോ എനിക്ക് പെർ ഡേ ടൂ തൗസന്റ റുപ്പീസായിട്ടാണ് വരുന്നത് ഓ ഇവിടെ എല്ലാത്തിനും ഇവിടെ ബ്രഹ്മഗിരി മല ബാണാസുരലെയ്ക് ഡാമ് പൂക്കോട് ലെയ്ക്ക് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ആ പാക്കേജിൽ ഉൾപ്പെടും ആ പാക്കേജിൽ ഉണ്ടാകും പിന്നെ റിസോട്ടിൻറ്റേം വണ്ടീൻറ്റേം എക്സ്ട്രാ ചാർജ് അത് നിങ്ങൾ കൊടുക്കണം ബാക്കിയെല്ലാം നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ഫുഡിൻറ്റേം കാര്യങ്ങളൊക്കെ ആ പാക്കേജിൽ തന്നെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അ ആ പാക്കേജിലുണ്ട് രണ്ട് ദിവസം കഴിഞ്ഞ് കല്പറ്റയെത്തും

ഞങ്ങൾ നേരെ വന്നിട്ട് തിരുനെല്ലീന്ന് പറയുന്ന ഒരു സ്പോട്ടിലിക്ക് വാന്നെ ആ തിരുനെല്ലീക്ക് വരാൻ അവിടെ ഇവിടെ ഞങ്ങളെ ഞങ്ങളെ സ്വന്തമായിട്ട് റിസോട്ടൂണ്ട് വണ്ടി ഞങ്ങൾ തന്നെ എടുത്ത് തരാം ആ ഞാനും വരാം വണ്ടിയിൽ ഞാനും വരാം കല്പറ്റവരെ നിങ്ങളെ പിക്ക് ചെയ്യാം പിന്നെ കാണാൻ കറങ്ങാൻ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ നിങ്ങൾ എത്ര ദിവസത്തേക്കാണ് ട്രിപ്പ് പ്ലാൻ ചെയ്തേക്കുന്നത് എല്ലാടേം കണ്ട് തീർക്കണമെങ്കിൽ ഒരു ആറ് ഏഴ് ദിവസം വേണ്ടി വരും ഒരാഴ്ച ഒരാഴ്ചക്കുള്ളിലെ തീരുള്ളൂ ആ വൺ വീക്ക് എല്ലാം കണ്ടൊന്ന് ആസ്വദിച്ച് സെറ്റായി വരാണമെങ്കിലേ ഫാമിലിയായിട്ടാണോ സാറേ ഫ്രണ്ട്സായിട്ട് ആ അപ്പോൾ എന്തായാലും കണ്ടൊന്ന് സെറ്റായി വരണമെങ്കിൽ എങ്ങനാണെങ്കിലും ഒരു ഒരാഴ്ച വരും ആ ഒരാഴ്ച എന്തായാലും ഞാൻ ഉണ്ടാകും ഏഴ് പേര് എന്ന്ന്നാ മറ്റന്നാളല്ലേ മറ്റന്നാളല്ലേ നിങ്ങൾ എത്തുക ഇന്ന് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മറ്റന്നാൾ മോണിങ് ഒൻപത് മണിയാകുമ്പോഴത്തേക്കുംല്ലേ എന്നാൽ ഞാൻ ഒൻപത് മണിയാകുമ്പോഴത്തേക്കും ഒരുന്നോവേം കൊണ്ടോന്ന് പിക്ക് ചെയ്യാം ആ നേരെ തിരുനെല്ലി വരും പിന്നെ ഇവിടെ അത്യാവശ്യം കാണാനുള്ള സ്പോട്ടിലേക്കൊക്കെ പോകും ഏഴ് ദിവസം കൊണ്ട് ഫുൾ സെറ്റിലാക്കിയിട്ട് പാക്കേജ് ഡീലാക്കാം തിരിച്ച് കൽപ്പറ്റ വിട്ടാൽ മതിയോ ആ തിരിച്ച് കൽപ്പറ്റ ആദ്യം പ്രൊവൈഡ് ചെയ്യാം ആ അത് കുഴപ്പമില്ല അതും ഡീലാക്കിത്തരാം ഓക്കേ ബ്രോ എന്നാൽ ഞാനിന്നാല് നിങ്ങളെ മറ്റന്നാളേ എത്തുന്നതിന് മുമ്പേ ഒന്ന് വിളിക്കൂട്ടോ ഓക്കേ ഞാനിന്നാണ് സെറ്റാക്കിത്തരാം എല്ലാം